ഹായ് ചേച്ചി

എനിക്കിഷ്ടപ്പെട്ടത് ക്രിക്കറ്റാണ് ഞാൻ അങ്ങനെ ഫോളോ ഒന്നും ചെയ്യാറില്ലായിരുന്നു സ്പോർട്സ് കൂടുതലും അപ്പച്ചൻ കാണുന്നത് വച്ചിട്ടാണ് ക്രിക്കറ്റിലോട്ട് വരാൻ തുടങ്ങിയത് ക്രിക്കറ്റ് ആദ്യം എന്തുവാന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഓരോന്ന് ഓരോന്ന് പതുക്കെ പതുക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ക്രിക്കറ്റിന് മെയിൻ ആയിട്ടുള്ളത് പതിനൊന്ന് പേരാണ് കളിക്കാൻ ആയിട്ട് അപ്പോള് അതില് നന്നായിട്ടുള്ള ബോളേഴ്സ് കാണും നല്ല കുറച്ച് ബാറ്റേഴ്സ് കാണും ഒരു നല്ലൊരു കീപ്പർ വേണം അങ്ങനെ അവരെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നെ അപ്പോള് അങ്ങനെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് നമ്മുടെ ഒരു ഓവറുണ്ട് ഓവറിലാണ് അവര് കളിക്കുന്നത് അപ്പോള് അത് നമ്മള് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അത് കളി എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യം ഒന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല പിന്നെ പതുക്കെപ്പതുക്കെ നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാകുന്നത് ഒരു ഒരു ഓവറിൽ ആറ് ബോളാണ് അപ്പോള് നമ്മള് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി ചെന്ന് തൊട്ടു കഴിഞ്ഞാല് അത് ഫോർ ആവും അതിൻ്റെ അപ്പറേ പോയിക്കഴിഞ്ഞാല് അത് സിക്സ് ആവുവാണ് ചെയ്യുന്നത് അപ്പോള് നമുക്ക് അങ്ങനെയൊക്കെ കളി മനസ്സിലാക്കാൻ പറ്റും ഇപ്പോള് ട്വൻ്റി ട്വൻ്റി ആണെങ്കിൽ ഇരുപത് ഓവർ ആയിരിക്കും ഉള്ളത് അപ്പോള് ഇരുപത് ഓവറില് ഒരോവറിൽ ആറ് ബോളാണ് അപ്പോള് ഇരുപത് ഇൻ്റു ആറ് നൂറ്റി ഇരുപത് ബോൾസ് ആണ് ഒരു ആ കളിയിൽ ഉള്ളത് അപ്പോള് അത്രയും ബോൾസ് അവർക്ക് എടുത്ത് കഴിഞ്ഞാല് എത്ര റൺസ് എടുക്കാൻ പറ്റും അപ്പോള് നമുക്ക് അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോള് സിക്സും ഫോറും ഒക്കെ എടുക്കുവാണേൽ എളുപ്പന്ന് കളി ജയിക്കാൻ പറ്റും അപ്പോള് ഇപ്പോള് ആദ്യം കളിക്കുന്നത് ഇപ്പോള് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇന്ത്യ ഇംഗ്ലണ്ട് വാസ് ഇന്ത്യ വാസസ് ഇംഗ്ലണ്ട് ആണെങ്കില് ഇംഗ്ലണ്ടാണ് ആദ്യം കളിക്കുന്നുവെങ്കിൽ അവരിപ്പോള് നൂറ്റി അമ്പത് റൺസ് എടുത്താല് ഇന്ത്യ എടുക്കും നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുക്കണം അപ്പോള് അവരത് അതിനനുസരിച്ച് അവരുടെ കളി അവരുടെ ബാറ്റിംഗ് ആവുമ്പോള് അവര് നൂറ്റി അമ്പത്തൊന്ന് എടുക്കണം അങ്ങനാണ് അതിൻ്റെ ഇത് പോകുന്നത് അപ്പോള് നമുക്ക് കളി ഒത്തിരി ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാല് നമുക്ക് അടിപൊളി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ഒക്കെ കളിച്ചു നടക്കുന്ന കളികളാണ് കുറെ പേര് ഫുട്ബോളിലോട്ടോക്കെ മാറിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ നൊസ്റ്റാൾജിയ അത് വേറെ ഒന്നാണ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കളിയാണ് ക്രിക്കറ്റ് കാരണം നമുക്ക് അവിടെ കണ്ടിരിക്കാൻ തോന്നും ഇപ്പോഴാണെങ്കില് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കഴിഞ്ഞു ഇന്നാണെങ്കില് ഇന്ന് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നാണ് അതിൻ്റെ ഫൈനലാണ് എട്ടുമണിക്ക് അപ്പോള് ഇന്ന് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂടാണ് കളിക്കുന്നത് അപ്പോള് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോള് ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനിക്കാം അപ്പോള് അതുകൊണ്ടുതന്നെ എനിക്ക് ക്രിക്കറ്റാണ് ഒത്തിരി ഇഷ്ടം